മൊബൈൽ ഫോണെന്നു പറയുന്നത് ഒരു ഏറ്റോം നല്ലൊരു ഏറ്റോം നല്ലതെന്നല്ല ഭയങ്കര യൂസ്ഫുള്ളായിട്ടൊരു കാര്യം മൊബൈൽ ഫോണന്നെയാണ് ഇപ്പോൾ നമ്മൾ ആശയവിനിമയത്തിനൊക്കെയാണങ്കിൽ മൊബൈൽ ഫോൺ ഏറ്റോം നല്ലൊരു കാര്യംതന്നെയാണ് ഇപ്പോൾ മൊബൈൽ ഫോണിനു നെഗറ്റിവും പോസിറ്റിവും ഉണ്ട് അതിൻ്റെ പോസിറ്റീവുകൾ എന്താല്ലാംന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു മെസ്സേജ് അയക്കാൻ ഇ മെയിൽ അയക്കാൻ ഒരു നമുക്ക് പെട്ടെന്ന് ആവശ്യമുള്ള നമ്മുടെ വീട്ടിലേക്കാവശ്യമുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ വാങ്ങാൻ ഒരു ഓസ്പിറ്റൽ കേസ് വന്നാലൊക്കെ നമുക്ക് മൊബൈൽ ഫോൺ അത്യാവശ്യമാണ് എന്ത് എമർജൻസി കേസ്സാണെങ്കിലും നമുക്ക് മൊബൈൽ ഫോണുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ് ഒരു കണക്കിന് പെട്ടെന്നൊരു എന്തെങ്കിലുമൊരു തീ പിടുത്തമോ ഒരു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫോണിൽ ഡയൽ ചെയ്ത് വിളിക്കാനൊക്കെ ഏറ്റോം നല്ല ഒരു ഇത് മൊബൈൽ ഫോൺ തന്നാണ് പിന്നെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ട്ടംപ്പോലെ നമുക്ക് ഗൂഗിളിലാണേലും സെർച്ച് ചെയ്താൽ എല്ലാം കിട്ടും പിന്നെ സെർച്ച് ചെയ്താൽ നമുക്ക് ഗൂഗ്ളിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ കിട്ടും പിന്നെ ക്ലാസുകൾ നമുക്ക് വേണ്ട ക്ലാസുകളൊക്കെ നമുക്ക് യൂ ട്യൂബിൽ അങ്ങനെയൊക്കെ ലഭ്യമാണ്